പ്രാദേശിക സംസ്കാരം നേരിൽ നിലവിൽ നേരിടുന്നൊരു വെല്ലുവിളി എന്നുപറയുന്നത് നമ്മുടെ ഒരു പൈതൃകം എന്നുപറയുമ്പോളവിടെ മൺപാത്ര നിർമ്മാണമാണ് മൺപാത്ര നിർമ്മാണം ഇപ്പോൾ പല സാഹചര്യത്തിലും നിർത്തി വെയ്ക്കേണ്ട ഒരവസ്ഥ വന്നിട്ടുണ്ട് കാരണം എല്ലാവരും ഇങ്ങനെ ഓരോ വിദ്യാഭ്യാസ തലത്തിലായിരുന്നാലും അല്ലെങ്കിൽ ജോലിയുടെ സാധ്യത അന്വേഷിച്ച് പുറം രാജ്യങ്ങളിൽ പോകുമ്പോഴും പുറം സ്ഥലങ്ങളിൽ പോകുമ്പോഴും ഈ ഒരു മൺപാത്രനിർമ്മാണം പല കാരണങ്ങളാൽ മുടക്കപ്പെടുന്നുണ്ട് പക്ഷേ എന്നിരുന്നാൽപ്പോലും അത് പൂർണ്ണമായും നിലച്ചുപോകുന്നില്ല എന്നുള്ളതു തന്നെയാണൊരു ഒരു പ്രത്യേകത എന്നുപറയുന്നത് നമ്മുടെ നാട്ടിൽ ഉത്സവങ്ങൾ വരുമ്പോൾ ആ ഒരു പ്രദേശത്തെ ക്ഷേത്രങ്ങളിൽ ഉത്സവങ്ങൾ വരുമ്പോൾ ഈ ഒരു മൺപാത്രങ്ങളാണ് അവിടെ ഉണ്ടാക്കി ഉത്സവങ്ങളിൽ വിൽക്കുക ഉത്സവ ഒരു വേളകളിൽ വിൽക്കുന്നതും പിന്നെ ക്ഷേത്രങ്ങളെ ആവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കുന്നതും ഈ തരത്തിലുള്ള മൺപാത്രങ്ങളാണ് അങ്ങനെ ഉപയോഗിക്കുന്നതിലൂടെ വളരെ രീതിയിലുള്ള ഒരു പ്രോത്സാഹനം അങ്ങനെ കിട്ടുന്നില്ലെങ്കിൽ പോലും അത് നിലനിർത്തിക്കൊണ്ട് പണ്ടത്തെ തലമുറകൾ വച്ച് പുലർത്തിയിരുന്ന ആ ഒരു സംഭവം നിലനിർത്തിക്കൊണ്ട് തന്നെ പോകുന്നു എന്നതാണ് ഒരു ഒരു സവിശേഷത എന്ന് പറയുന്നത്